ഞാൻ സ്റ്റാമ്പ് പാറ തുടങ്ങിയ അതൊന്നും ശേഖരിച്ചിട്ടില്ലെങ്കിലും നാണയങ്ങൾ എനിക്ക് ശേഖരി ശേഖരിക്കാൻ ഭയ ഭയങ്കര ഒരു വളരെ ഒര് ഭയങ്കര ഒരിഷ്ടമായിരുന്നു അതുകൊണ്ടുതന്നെ നാണയങ്ങൾ ഞാൻ ഒരുപാട് ശേഖരിക്കുമായിരുന്നു പണ്ടുതൊട്ടുള്ളത് ഉള്ളത് പണ്ട് പണ്ട് പണ്ടത്തെ നാണയം തൊട്ട് ഈ ലാസ്റ്റ് നിർത്തിപ്പോയ ഒരു രൂപയുടെ നോട്ട് വരെ ഞാൻ ശേഖരിച്ചു വയ്ക്കുമായിരുന്നു ശേഖരിച്ച് വെച്ചിട്ട് ഇരിപ്പുണ്ട് അതൊക്കെ എടുത്തു നോക്കുമ്പം നമ്മുടെ ഉള്ളില് പലതരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടാവാറുണ്ട് അത് പണ്ടുള്ളവര് ഈ നാണയം എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഈ നാണയങ്ങളിൽ ഉണ്ടായ പരിണാമ പരമായ മാറ്റങ്ങള് അതുപോലെ ഈ നാണയം അവർക്ക് കൊടുത്ത മൂല്യങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറിവരും അവര് ഈ നാണയങ്ങൾക്ക് കൊടുത്ത മൂല്യം അന്നത്തെ ആ നാണയത്തിന് ഇപ്പോൾ വച്ചുനോക്കുമ്പോഴുള്ള മൂല്യം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഈ നാണയങ്ങള് കാണുമ്പോൾ ഓർമ്മ വരും